ഹലോ ഡോക്ടർ അല്ലേ എനിക്ക് എനിക്ക് രണ്ട് ദിവസം ആയിട്ട് പനിയും ജലദോഷം ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഒന്ന് കോവിഡ് ടെസ്റ്റ് നടത്തിയായിരുന്നു അപ്പോൾ കൊറോണ പോസിറ്റിവ് ആണ് ആ ആ അതെ അതെ അപ്പം എന്താണ് ചെയ്യേണ്ടത് എന്ന് അറിയില്ല അപ്പോൾ അതുകൊണ്ട് ഒന്ന് വിളിച്ചതാണ് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു ഞാൻ ഒന്ന് തമിഴ്നാട് വരെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടുന്ന് തിരിച്ച് വരുമ്പോഴാണ് ടെസ്റ്റ് ചെയ്തത് അവരാണ് പറഞ്ഞത് പോസിറ്റിവ് ആണെന്ന് ഇന്ന് രാവിലെ ആണ് വിളിച്ച് പറഞ്ഞത്

ഇല്ല വേറെ എവിടെയും പോയിട്ടില്ല ആ ക്വാറൻറ്റെെനിൽ തന്നെ ആയിരുന്നു പിന്നെ വേറെ എവിടെയും പോവാൻ ചാൻസ് ഇല്ലല്ലോ അതുകൊണ്ട് പിന്നെ പോയിട്ടില്ല

പാരസെറ്റമോൾ തന്നെയാണോ ആ ഓക്കെ ഓക്കെ ആ

പുറത്ത് ഇറങ്ങാണ്ട് ഇരിക്കുക ആ

ആ ഓക്കെ ഓക്കെ ഇതല്ലാണ്ട് വേറെ വേറെ മരുന്ന് കാര്യങ്ങൾ ഒന്നുമില്ല അല്ലേ പാരസെറ്റമോൾ മാത്രമേ ഉള്ളൂ അല്ലേ ആ ആ ആ ഇത് ഇപ്പോൾ തന്നെ മാറുവാണോ പിന്നെ എങ്ങനെയാണ്

കുറയും അല്ലേ ആ ആ ഓക്കെ ഓക്കെ ആ ആ ആ ഓക്കെ ഓക്കെ പിൻ ആ ഓക്കെ ഓക്കെ അപ്പം എപ്പോഴും നമ്മൾ സാനിറ്റൈസർ ഒക്കെ യൂസ് ചെയ്യണമായിരിക്കും അല്ലേ മാസ്ക് ഒക്കെ ആ ആ ഓക്കെ ഇതിപ്പോൾ നമ്മൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് ടെസ്റ്റ് ചെയ്യേണ്ടത് പതിനാല് ദിവസം കഴിഞ്ഞിട്ട് അല്ലേ ആ ഓക്കെ ഓക്കെ അത് കഴിഞ്ഞിട്ട് കൊറോണ നെഗറ്റിവ് ആണെങ്കിൽ നമുക്ക് പുറത്ത് ഇറങ്ങാൻ പറ്റുവോ കുഴപ്പമില്ലല്ലേ ആ ഓക്കെ ഓക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡോക്ടറെ വിളിക്കാം ഞാൻ ഓക്കെ ഓക്കെ എന്നാൽ സ്ഥലം മാനന്തവാടി